പണ്ട് എന്താ പറയുക പണ്ടത്തെ ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് നമുക്കിപ്പോൾ ഒറ്റൊരു മാറ്റം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നിൽക്കുന്നത് പോലത്തെ പിക്ക് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അതായത് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഫേസ് ആപ്പ് ഫോട്ടോഷോപ്പ് അങ്ങനെ കുറേ ആപ്പുകള് ഫോണില് വന്നിട്ടുണ്ട് പിന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടും നമുക്ക് എത്ര സൂം ചെയ്തിട്ടും നമുക്ക് എത്ര ദൂരെയാണെങ്കിലും നമുക്ക് ആ ഫോട്ടോയെടുക്കാൻ പറ്റും വളരെ മനോഹരമായിട്ട് ആ ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്ക് ഫോണിൽ തന്നെ എഡിറ്റും ചെയ്യാൻ പറ്റും അപ്പം പണ്ടൊക്കെ ആയിരുന്നു ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോകണം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേസിന്റെ അടുത്ത് പോയി നമ്മൾ നിർദ്ദേശിച്ചത് ഇപ്പം നമുക്ക് പുതിയ പുതിയ ക്യാമറകൾ വന്നു അപ്പം നമുക്ക് എളുപ്പമാണ് ഫോട്ടോ എടുക്കാൻ ക്യാമറേന്റെ പിന്നെ ക്ലാരിറ്റി മാറി നല്ല നല്ല ക്യാമറകൾ വന്നു പുതിയ പുതിയ ബ്രാൻഡിന്റെ ക്യാമറകൾ വന്നപ്പം ആൾക്കാരില് ഫോട്ടോ ഫോട്ടോ എല്ലാം ഭയങ്കര ട്രെൻഡിങ് ഫോട്ടോ ഒക്കെയാണ് ഇപ്പോൾ ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ അതിന് അങ്ങനത്തെ ചിന്താ അതേപോലെത്തെ കഴിവുള്ള നല്ല നല്ല ക്യാമറമാന്മാരും വന്നു പിന്നെ അതേപോലെത്തന്നെ മൊബൈൽ ക്യാമറകളും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടു അപ്പോൾ ഇപ്പം അത് എന്താ പറയുക വളരെ എളുപ്പമുള്ള ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫി എല്ലാവർക്കും എല്ലാവർക്കും അതില്ല ചിലവർക്ക് മാത്രമേ അത് പ്രത്യേക കഴിവാണ് അവർ എടുക്കുന്നത് അൺ എക്സ്പെക്ടഡ് എക്സ്പെക്ടഡ് ഒക്കെയായിട്ട് നല്ല നല്ല ഫോട്ടോസുകൾ നമുക്ക് കിട്ടും